സാങ്കേതിക വിദ്യയുടെയും ഇൻ്റർനെറ്റിൻ്റെയും വളർച്ചക്കൊപ്പം മലയാള ഭാഷക്കും യുടെ ഉപയോഗത്തിനും നല്ല രീതിയിൽ ഉള്ള പിന്നെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു ആദ്യകാലങ്ങളില് മാസ്കി കോഡാണ് ആസ്കി കോഡില് പിന്നെ കമ്പ്യൂട്ടിങ് നടന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു വർഷങ്ങള് റെപ്രസെന്റിയ്യാനായിട്ട് ടെക്നിക്കലി പറ്റുന്നില്ലായിരുന്നു ഇപ്പോഴ് യൂണിക്കോഡ് വന്നതിന് ശേഷം നല്ലരീതിയില് നമ്മുടെ ഭാഷയെ പ്രയോഗിക്കാൻ പറ്റിയിട്ടുണ്ട് യൂണിക്കോഡില് എല്ലാ അക്ഷരങ്ങളെയും മലയാളത്തിലുള്ള എല്ലാ അക്ഷരങ്ങളെയും സിംപൽസിനെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട് നല്ല രീതിയിൽ പ്രത്യേകിച്ച് ഗൂഗിള് മലയാള ഭാഷക്കൊരുപാട് പിന്നെ പ്രധാന്യം കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇപ്പം വിൻഡോസും മലയാള ഭാഷക്ക് നല്ലരീതിയിലുള്ള പ്രാധാന്യം അതിൻ്റെ ഒപ്പേറേഷൻ സിസ്റ്റത്തില് വരുത്തിയിട്ടുണ്ട് മുൻകാലങ്ങളില് വിൻഡോസിലൊന്നും അതില്ലാരുന്നു ഇൻ്റർനെറ്റിൽ ഇല്ലായിരുന്നു അത് കൊണ്ട് ഭാഷയ്ക്ക് നല്ല പ്രാധാന്യം കൊടുത്ത് അതപോലെ ഇപ്പഴത്തെ നടക്കുന്ന ഈ മിഷൻ പോലും മലയാള ഭാഷയെ കൂട്തല് ഇമ്പ്രൂവ് ആക്കിയെടുക്കാനായിട്ടുള്ളത് ആണ് ഞാനൊക്കെ ആദ്യകാല കമ്പ്യൂട്ടിങ്ങില് വളരെ വളരെ ബുദ്ധിമുട്ടിയിരുന്നു ആ യിതില് പിന്നെ ഇത് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ഫോണ്ട് ബോഡൊക്കെയുണ്ടാക്കി മലയാള ഭാഷ അന്ന് ടൈപ്പെയ്യാനായിട്ടൊക്കെ വളരെയധികം വേഡ് പോസിയ്യാനൊക്കെ വളരെ പാടായിരുന്നു എൻ്റെ സ്വന്തമായിട്ടുള്ള അതിലെ രീതി എന്ന് നിലയിൽ പോലും ഞാൻ ഡെവലപ് പ്പെയ്തിരുന്നു ചെയ്തിരുന്നു ആദ്യകാലങ്ങളില്